നമ്മുടെ സംസ്ഥാനത്ത് ആദരിക്കപ്പെടുന്നത് നമ്മുടെ ഒക്കെ പൂ പൂർവികന്മാരായ നമ്മുടെ പിതാക്ക് നമ്മുടെ പൌത്യ പിതാവിനെയാണ് കൂടുതലായിട്ട് ആദരിച്ച് കണ്ടിരിക്കുന്നത് കാരണം പൗത്യ പിതാവ് നമ്മുടെ സഭയ്ക്ക് വേണ്ടി ചെയ്ത കാ നല്ല നല്ല കാര്യങ്ങൾ അദ്ദേഹം സഭയെ ഊട്ടി വളർത്താനായിട്ട് ഒരു അഹോരാത്രം പ്രയത്നിച്ച ഒരു മഹത് വ്യക്തി തന്നെയാണ് പൗത്യ പിതാവ് അദ്ദേഹത്തിൻ്റെ ജീവിത സാന്നിധ്യം നമ്മുടെ സഭയെ അതിശോഭനമായിട്ട് വളർത്തിയെടുത്തിട്ടുണ്ട് ഇന്ന് ക്രൈസ്തവ സമൂഹത്തിലെ ഏറ്റവും അഭിമാനിക്കുന്നത് ആ പൗത്യ പിതാവിൻ്റെ പിന്തുടർച്ചയായിട്ടുള്ള സഭയാണ് ഇന്ന് നമുക്കിവിടെ ഉള്ളത് എന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കും പിതാവിൻ്റെ സാന്നിധ്യം ഓരോ രൂപതയ്ക്കും അതിൻറേതായ വളർച്ചയ്ക്കും എല്ലാം ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് പല രീതിയിലും പിതാവിനെ ആദരിക്കുക ആദരിച്ചിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് കാരണം എഴുത്തിലൂടെ ആണെങ്കിലും തൻ്റെ വാക്കുകളിലൂടെയാണേലും സഭയ്ക്ക് വേണ്ടി പോരാടിയ ഒരു മഹത് വ്യക്തി തന്നെയാണ് പൗത്യ പിതാവ് വളരെ ശാന്തശീലനായ പിതാവ് ആരുടെയും നിറ ആരുടെയും എന്ത് കാര്യങ്ങൾ സ് പറഞ്ഞാലും അതിനെ ശ്രദ്ധയോടെ കേൾക്കുവാനും അവയ്ക്ക് ശ്രദ്ധയോടെ മറുപടികൾ കൊടുക്കുവനും പിള്ള പിതാവ് വളരെ തീക്ഷ്ണമായിട്ട് പ്രയത്നിച്ചിട്ടുണ്ട് പിതാവിന് നല്ല നല്ല വാക്കുകൾ പിതാവ് തൻ്റെ എഴുത്തിലൂടെയാണ് കൂടുതലും പരാമർശിച്ചിരിക്കുന്നത് അദ്ദേഹം വളരെയധികം നല്ല കാര്യങ്ങൾ സഭയ്ക്കായിട്ടും സഭ സമൂഹത്തിലുള്ള ജനങ്ങൾക്കായിട്ടും എല്ലാം വളരെയധികം ചെയ്തിട്ടുണ്ട് ഒരുപാട് ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ പിതാവ്